ആ വരൂ ആരുടെ പാരന്റ് ആണ് അഖിലിൻ്റെ ആ ആ അഖിൽ കെ അല്ലെ ക്ലാസ്സിൽ രണ്ടഖിലുണ്ടേ ഇപ്പോൾ എന്താ വീട്ടിൽ വന്നിട്ട് അഖില് പഠിക്കാറുണ്ടോ അയ്യോ പത്താം ക്ലാസ്സാണ് ലിമിറ്റ് ചെന്നാൽ ഇപ്പഴാണ് ശ്രദ്ധിക്കണ്ടത് അറിയാലോ പത്താം ക്ലാസാണ് ഇവിടുന്നാണ് നമ്മളുടെ എങ്ങോട്ടാണിനി ഇതാവണ്ടേന്നൊള്ളതൊക്കെ തീരുമാനിക്കുക മെയിൻ പത്താം ക്ലാസ്സാണ് പത്താം ക്ലാസ്സില്ലെങ്കിൽ ഒന്നും ആവില്ല ഈ കാലത്തൊക്കെ

ആ യൂണിറ്റ് ടെസ്റ്റിൻ്റെ പേപ്പറൊക്കെ വീട്ടില് കാണിച്ച് തന്നിട്ടൊണ്ടോ ആ അല്ല സാധാരണ ആൺ കുട്ടികള് ചിലപ്പോൾ വീട്ടിൽ കാണിക്കാറില്ല ഞങ്ങള് ഇവിടന്ന് ചോദിക്കുമ്പോൾ ആന്നൊക്കെ പറയാറുണ്ട് വീട്ടില് കാണിച്ച് തന്നിട്ടൊക്കെയൊണ്ട് അല്ലേ ആ ഇവനങ്ങനേ വരൂ അഖില് മാർക്കൊന്നും കുഴപ്പമില്ല ആ വലിയ മോശം ഇല്ല ആ കണക്കില് കുറച്ച് പുറകോട്ടാണ് ആ കണക്കിലാണ് കുറച്ച് മാർക്ക് കുറവ് കണ്ടത് ഞാൻ തന്നെയാണ് കണക്കെടുക്കുന്നത് അപ്പം ക്ലാസ്സില് ശ്രദ്ധിക്കാത്ത പ്രശ്നമൊന്നുമില്ല എന്താന്നറിയില്ല മാർക്ക് കമ്മിയാണ് ബാക്കി സബ്ജെക്ട് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ വീട്ടില് വന്നാൽ കണക്കല്ലേ അപ്പോൾ ചെയ്ത് തന്നെ പഠിക്കാൻ പറയുക ഈ കുത്തിയിരുന്ന് ചെയ്ത് പഠിക്ക് എന്നാലെ കണക്ക് പഠിക്കുകയുള്ളു ഈ ബുക്കിലുള്ളത് അങ്ങനെയല്ലല്ലോ ചോദിക്കുക ചിലപ്പോൾ തിരിച്ചിട്ടാരിക്കും ക്വസ്റ്റ്യൻസ് വരിക അപ്പം നമ്മൾ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമെ ഉള്ളു കണക്കിലൊക്കെ മാർക്ക് സ്കോറ് ചെയ്യാൻ പറ്റുക ഞാൻ ഹോം വർക്കൊക്കെ കൊടുക്കാറുണ്ട് ഇവര് എല്ലാവരും ഒന്നും ചെക്ക് ചെയ്യാൻ ടൈമ് കിട്ടാറില്ല ഈ എല്ലാ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയും ഇനി അവിടെ വന്ന് കോപ്പിയടിച്ച് ചെയ്യുന്നത് ആണോന്നൊന്നും നമ്മക്കറിയില്ലല്ലോ ആ ആ ക്ലാസ്സില് വലിയ അലമ്പോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ക്ലാസ്സിലൊക്കെ കയറാറുണ്ട് എല്ലാ അറ്റെൻഡൻസും എല്ലാ കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിലും മാർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ക ഇതില് മാത്രം കുറച്ച് കമ്മി കണ്ടു അതാണ് അപ്പോൾ അത് കണക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്തായാലും ചെയ്ത് പഠിച്ചാലെയൊള്ളു അതില് മാർക്ക് സ്കോറ് ചെയ്യാൻ പറ്റുക ഏയ് ട്യൂഷന് നമ്മള് വിടാതിരിക്കുവാണ് നല്ലത് കാരണം ഇവിടന്നും കുറേ കുട്ടികള് ക്ലാസ്സിന്നിങ്ങനെ ട്യൂഷനു പോയാലും ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കില്ലേ അതിന് സ്വയം എന്തെങ്കിലും പഠിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ചെയ്യണ്ടേ അവിടെ പോയാലും ഇങ്ങനെ ക്ലാസ് കേൾക്കുക തന്നെയൊള്ളു പിന്നെ പത്താം ക്ലാസ്സാകുമ്പോൾ ട്യൂഷൻ നമ്മളെല്ലാരും കൊണ്ടുപോയി ചേർക്കും ട്യൂഷൻ അധികം പഠിക്കാൻ പക്ഷേ അപ്പഴാണ് അവർക്ക് തീരെ ടൈമ് കിട്ടാത്തത് അവര് സ്വയം ഇരുന്ന് പഠിക്കണ്ടേ

ആ നമ്മളിനിയിപ്പോൾ എക്സാം ടൈമ് ആകുമ്പഴേക്കും നമ്മള് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ വയ്ക്കും വൈകിട്ടൊരര മണിക്കൂറ് എക്സ്ട്രാ ക്ലാസ്സൊക്കെ വെക്കും ഇതിപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് അല്ലേ യൂണിറ്റ് ടെസ്റ്റ് ആയതുകൊണ്ടാണ് ഇനി മിഡ് ടേമൊക്കെ ആകുമ്പഴേക്കും അപ്പോൾ നമുക്ക് ശരിയാക്കാം

ആ അത് ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെ തന്നാ ഇനി മാത്സ് താല്പര്യം ഇല്ലാഞ്ഞിട്ടാവും അതിപ്പം ആ ഞാ അപ്പോൾ ചെയ്ത് പഠിക്കണം ചെയ്ത് പഠിച്ചാലെ മാത്സ് പഠിയൂ ബുക്ക് അങ്ങനെ പിന്നെ വായിച്ച് നോക്കി പഠിച്ചിട്ടൊന്നും കാര്യവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി

ആ ആ ആ ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയാണ്

ആ ആ ഓക്കെ അതൊക്കെ ഞങ്ങളിവിടുന്ന് ശ്രദ്ധിക്കും ആ ശരി ആ തെ